അസുഖങ്ങളൊക്കെ വന്നാൽ കൂടുതലും ആശുപത്രികളിൽ പോകാറില്ല വീട്ടിൽ തന്നെയാണ് ചികിത്സ തേടാറ് പൊടിക്കൈകൾ അല്ലെങ്കിൽ പഴയ രീതിലൊള്ള വീട്ടുവൈദ്യങ്ങളെ തന്നെയാണ് കൂടുതലും ആശ്രയിക്കാറുള്ളത് അതിപ്പോൾ പനിയാണെങ്കിലും ജലദോഷം തൊണ്ടവേദന പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിൽനിന്നു തന്നെ ആണതിന് ഉള്ള പൊടിക്കൈ സ്വീകരിക്കുന്നത് അതിപ്പോൾ എന്തെങ്കിലും ചുക്ക് കാപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കുടിക്കും രാവിലെയും വൈകുന്നേരവും അതേപോലെ ഉപ്പ് വെള്ളം ഉപ്പ് വെള്ളം കൊണ്ട് വായ കഴുകും അതേപോലെ തുണി നനച്ച് നെറ്റിയിൽ തുണി നനച്ചിടുക അങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത് പിന്നതേപോലെ വെള്ളം ആവി പിടിക്കും വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി പിടിക്കും പുതപ്പിട്ട് മൂടിയിട്ട് അങ്ങനെയുള്ള പൊടിക്കൈകളാണ് കൂടുതലും ചെയ്യാറുള്ളത് എന്നിട്ടും മാറിയില്ലെങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിൽ പോകാറുള്ളു അധികവും ആശുപത്രികളിൽ പോകാറില്ല